ഹലോ ഇത് സിൽവർ ഏജൻസി അല്ലേ അതെ ഞാൻ ചിത്രയായിരുന്നു സംസാരിക്കുന്നത് കഴിഞ്ഞ മാസത്തേതില് മണാലി ക്യാമ്പിങ്ങിനുള്ള ബുക്കിങ്ങിന് ഞാനും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ചില സാഹചര്യം കൊണ്ട് എനിക്ക് ക്യാമ്പിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അപ്പോളത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത് അപ്പോൾ ഞാൻ ഏജൻസിയിൽ വന്ന് അഡ്വാൻസ് നൽകിയിട്ടുണ്ടായിരുന്നു നേരിട്ട് വന്നാണ് അഡ്വാൻസ് നൽകിയിരുന്നത് അപ്പോൾ ആ പൈസ എനിക്ക് തിരിച്ച് നൽകുകയും വേണം അപ്പം നേരിട്ടെനിക്ക് കയ്യിൽ എനിക്ക് പൈസ വേണ്ട എനിക്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്താൽ മതി എനിക്ക് അ പൈസ മുഴുവൻ നൽകുകയും വേണായിരുന്നു പതിനായിരം രൂപയായിരുന്നു നൽകിയിരുന്നത് അപ്പം ആ പൈസ മുഴുവനുമായിട്ട് എനിക്ക് അക്കൗണ്ടിലോ ജി പേ യോ ചെയ്തിരിക്കണം എനിക്ക് നേരിട്ട് വന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളതു കൊണ്ടാണ് ഞാന് അക്കൗണ്ടിൽ തരാൻ പറയുന്നത് അപ്പം നിങ്ങളുടെ സൗകര്യാർത്ഥം എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ അക്കൗണ്ടിലാണെങ്കിലും ഇട്ടു തന്നാൽ മതി അക്കൗണ്ട് നമ്പര് പറഞ്ഞാൽ അക്കൗണ്ടിലാ ഇടുന്നതെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാനാ അക്കൗണ്ട് ഞാന് വാട്സ്ആപ്പ് ചെയ്തേക്കാം നമ്പരും കാര്യങ്ങളും ഞാന് വാട്സാപ്പിൽ ഇട്ട് തന്നേക്കാം എനിക്ക് അക്കൗണ്ടിൽ പൈസ തിരിച്ചു നൽകിയാൽ മതി